ഹലോ ഡോക്ടറല്ലേ

ഒരാഴ്ച്ചയായിട്ട് പനിയായിരുന്നു പനിയുണ്ട് ചുമയൂണ്ട് ആ മരുന്ന് ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കുന്നത് ആയിരുന്നു പക്ഷേ കുറവില്ല

ആ മോൾക്കുണ്ടായിരുന്നു മോളത് ഇപ്പം കുറച്ച് കുറവുണ്ട് ഓൾക്ക് രണ്ടാഴ്ചയായിട്ട് നല്ല പനിയായിനി ഇല്ല വേറാർക്കും വന്നിട്ടില്ല

ആ ബുക്ക് ചെയ്യണം ആ ആ

വേറൊന്നും ഇല്ല ഇല്ല ഇല്ലാ

ആ ആ